പത്തനംതിട്ട ജില്ലയിലെ വളരെ അധികം പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഗവി ഞാനും എൻ്റെ കുടുംബവും ഏറ്റവും കൂടുതൽ പോകാനാഗ്രഹിച്ച സ്ഥലവുമാണ് ഗവി ഗവിയുടെ മനോഹാരിത മനോഹാരിതയെന്ന് പറഞ്ഞാലത് വാക്കുകളാൽ പറയാൻ സാധിക്കുകയില്ല വളരെ അധികം ആൾക്കാരത് ടൂറിസ്റ്റുകളുൾപ്പെടെയുള്ള ആൾക്കാരും കാണാൻ ശ്രമിക്കുന്ന അതുപോലെ തന്നെ ഒരവധിക്കാലം കിട്ടിയാൽ വരാൻ ശ്രമിക്കുന്നതാണ് ഗവി അതുപോലെ നിരവധി അധികം നിരവധി അധികം പക്ഷികളും മൃഗജാതി മൃഗജാലങ്ങളും ഉണ്ടവിടെ അതുപോലെത്തന്നെ പക്ഷിയെ നിരീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ആ പ്രകൃതിരമണീയമായ പ്രകൃതിയെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നവർക്കേറ്റവും ഉചിതമായ സ്ഥലമാണ് ഗവി ഗവിയെപ്പറ്റി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ തണുപ്പാണ് പറയാൻ സാധിക്കുക കാരണം അവിടെ ഏതൊരു സമയത്തും നല്ല തണുപ്പേറിയ സ്ഥലമാണ് അതുകൊണ്ടുതന്നെ നമ്മളവിടെ ചിലവഴിക്കുന്ന സമയം അതുപോലെതന്നെ കൂടുതലായിരിക്കും സമുദ്രനിരപ്പിൽ നിന്നേകദേശം മൂവായിരത്തി നാനൂറടി ഉയരം സ്ഥിതി ചെയ്യുന്ന ഗവിയിൽ കൊടുംവേനലിൽ പോലും വൈകീട്ടായാൽ ചൂട് പത്ത് ഡിഗ്രിയിലേക്കെത്തുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഗവിയുടെ ഏറെ കുറേ ഉള്ള നല്ലൊരു സവിശേഷതയാണ് അവിടുത്തെ മൊട്ടക്കുന്നുകൾ മൊട്ടക്കുന്നുകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏതെങ്കിലുമൊരു മൊട്ട പല ഒന്നോ രണ്ടോ മൊട്ടക്കുന്നുകൾ വെച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കവിടെ അവിടെ നിന്ന് നോക്കിയാൽ ശബരിമല കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊരു സവിശേഷതയും അതുപോലെത്തന്നെ പുണ്യ സ്ഥലവുമാണ് ശബരിമല ശബരിമല സീസണുകളിൽ ആൾക്കാർ ഇരമ്പിയെത്തും നമ്മുടെ ശബരിമലയിൽ കയറാനായിട്ട് പുണ്യ പുണ്യ സ്ഥലമായ ശബരിമലയിൽ വിദേശത്ത് നിന്നും അതുപോലെത്തന്നെ പല നാടുകളിൽ നിന്നും ആൾക്കാരെത്തുന്നതാണ് കൊല്ലം മധുര ദേശീയ പാതയിലുള്ള വണ്ടിപ്പെരിയാർ പട്ടണത്തിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഗവി സ്ഥിതി ചെയ്യുന്നു കോട്ടയത്ത് നിന്നും തിരവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവ്വീസുണ്ട് അതാണ് മറ്റൊരു സവിശേഷത അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഗവിയിൽ പോവണമെങ്കിലും ഇതുപോലെയൊരു ആ സൗകര്യം വേറൊരിക്കലും കിട്ടില്ല ഗവി അതുപോലെത്തന്നെ മനോഹരം മനോഹരിതമായ സ്ഥലവുമാണതുപോലെത്തന്നെ ഗവൺമെൻറ്റിനേറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ഗവിയിൽ നിന്നാണ്